കർഷിക കമ്പോളത്തിൽ പച്ചക്കറികൾ എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുകളെ കുറിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പച്ചക്കറി ഉൽപാദിപ്പിച്ചു നമുക്ക് അതിനുള്ള അങ്ങനെയുള്ള മേഖലകൾ എടുക്കാനുള്ള മേഖലകൾ തപ്പിപ്പടിക്കാൻ മുമ്പത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ബദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് പിന്നെ ആർക്ക് വേണം എല്ലായിടത്തും ചെല്ലുമ്പോൾ അവർക്ക് നമുക്ക് തീരെ വിലക്കുറഞ്ഞു പറയും അവർ പറയും ഒരു വേണ്ടാത്ത രീതിയിലുള്ള പറയും എല്ലാം നമുക്ക് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും നമ്മളെ നമ്മുടേത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാനൊക്കെ ഒരു ചെറിയ കാർഷിക മേഖലയിൽ രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചു പറയാൻ സാധിക്കും ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഒരു നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെതിലുണ്ടെങ്കിൽ നമ്മൾ അത് കടകളിൽ കൊണ്ടു ചെല്ലുമ്പം പറയുമ്പോൾ അവർക്ക് കായയ്ക്ക് വലിപ്പമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നു പറയുമ്പോൾ നമുക്ക് നമുക്ക് ഈ കൃഷിയെടുത്ത് ചെയ്തു ഉണ്ടാക്കി തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള അവർക്ക് അവർക്ക് അത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുക നമ്മൾ അത് അങ്ങനെ എല്ലാം ഉണ്ടാക്കി എടുത്താണ് കൊ ച്ചുങ്ങളെ വളർത്തുന്ന കാണ് താങ്ങും തണലും കൊടുത്ത് എല്ലാം വളർത്തിക്കൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത് അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിനൊക്കെ വിലകളും കിട്ടുന്നില്ല നമുക്ക് അതിനൊക്കെ ഉള്ള ഒരു പ്രയോജനം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് നിരുത്സാഹം ഉണ്ടാവുകയും നമ്മൾ പുറകോട്ട് പോവുകയും പിന്നെ ഇന്നത്തെ കാലത്ത് ലേബർ ചാർജിനെക്കുറിച്ചു ലേബർ ചാർജാണെങ്കിൽ ഭയങ്കര ലേബർ ചാർജാണ് നമുക്ക് ലേബർ ചാർജ് കൊടുത്ത ഒരു സാ നനം നമുക്ക് ഉൽപാദിപ്പിക്കാൻ പറ്റത നമുക്ക് അതിനുള്ള മൂല്യം വിപണി മൂല്യം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അത് വിപണി മൂല്യം കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വിപണി മൂല്യം ഇല്ലെങ്കിൽ നമുക്ക് അത് ഒത്തിരി പുറകോട്ട് പോകുന്നുണ്ട് നമുക്ക് പല കാര്യങ്ങൾ ബദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നമുക്ക് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പറയും നമ്മൾ ഇപ്പം തന്നെ നമ്മൾക്ക് വളം നമ്മൾ നെല്ലിൽ തന്നെയാണെങ്കിൽ നമ്മൾ നെല്ലിൽ നമ്മൾ ഉല്പാദിപ്പിക്കുമ്പോൾ ഭയങ്കര കീടനാശിനികൾ കിടനാശിനകൾ നമ്മൾ എന്തെങ്കിലും അടിക്കുന്നു കിടനാശിനികൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ബെനഫിറ്റ് അതിൽ നിന്നും ഉണ്ടാവുന്നില്ല ഇപ്പം തന്നെ നെൽകൃഷി തന്നെ നമ്മൾ ചെയ്തു നെൽകൃഷിയിൽ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു അവസ്ഥ എൻ്റെ ഒരു അനുഭവം തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടത്തിലെ അൽപ്പം പുളിയുണ്ട് കണ്ടത്തിൽ പുളിയുണ്ടായിരുന്നു നെല്ലിനൊരു കറുപ്പ് മാതിരിയാണ് ഞങ്ങൾ ആദ്യമേ അതിലെ വളമിട്ടു പുളിമാറാനുള്ള ഒരു രാജാപസം എന്നു പറയുന്ന ഒരു വളമിട്ടു അതുകഴിഞ്ഞിട്ട് അത് മാറിയില്ല അതു കഴിഞ്ഞു പിന്നെ പിന്നെ ഡോളമായിട്ടെന്ന് പറഞ്ഞിട്ട് ഡോളാമെറ്റ് ഇട്ടു അത് കഴിഞ്ഞ്ട്ട് നമുക്ക് ഇത് ഡോളാമെറ്റ് ഡോളാമെറ്റ് ഇട്ടു ഡോളാമെറ്റ് ഇട്ടിട്ടും മാറിയില്ല അ ഫോസ്ഫറസെന്ന് പറയുന്ന വേറൊരു മംഗിനീഷെന്ന് പറയുന്ന ഒരു വളം മേടിച്ചിട്ടു ഇതെല്ലാം കഴിഞ്ഞിട്ട് അതുകൊണ്ട് മാറിയില്ല നമുക്ക് ഒരു പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ഒരു തൃപ്തി നമുക്ക് നമുക്ക് നമ്മുടെ കൃഷിയോട് നമുക്ക് നമ്മുടെ കൃഷി നല്ലതായിരുന്നാൽ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് നമുക്കൊരു ബെനഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കൃഷിൽ നിന്ന് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ കൃഷിയിൽ നിന്ന് നമുക്ക് കൃഷിയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വിപണിയാണ് നമ്മൾക്ക് ഒരു സാധനം നമുക്ക് മേടിക്കാൻ ആളില്ല പക്ഷെ നമ്മൾ കടലയിലോട്ട് മേടിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് നമ്മൾ കൊടുത്ത് സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് വിപണിയിൽ എത്തിക്കാനുള്ള ഒരു ഇതില്ല അതിന് സർക്കാറാണെന്നും അതിൻ്റെ പിന്നെ പ്രൊമോട്ട ചെയ്യുന്നില്ല സർക്കാർ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നില്ല പിന്നേ ഇന്നത്തെ കാലത്ത് നമ്മുടെ വിപണി സാധനങ്ങൾ നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ മേഖലകൾ നമ്മൾക്ക് ഒരുക്കി തന്നു സർക്കാരുകൾ ഒരുക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൃഷികളൊക്കെ ഒത്തിരി അഭിമുഖീകരിക്കുകയും ചെയ്യും തരിശില്ലാത്ത പാടങ്ങളുണ്ടാവുകയും ഒത്തിരി കാർഷിക മേഖലകളിലേക്ക് ഒത്തിരി വരികയും ഒത്തിരി ആൾക്കാർ വരികയും ചെയ്യും ഒരു യാതൊരു താല്പര്യങ്ങളും ആരും സർക്കാർ മേഖലകളിലണെങ്കിലും ബന്ധപ്പെട്ടവരൊന്നും കാണിക്കുന്നില്ല